അപ്പോൾ ആ ഭാഷ സംസാരിക്കുന്നതിലൂടെ ആയിരിക്കും അവർക്ക് പരസ്പരം എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ മനസ്സിലാവുക ഈ ലോകത്തുള്ള ഭാഷകൾ എണ്ണി നോക്കി നോക്കുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാൻ ഉള്ള സാധ്യത കുറവാണ് ഒരുപാട് ഒരുപാട് ഭാഷകൾ എന്ന് പറയുമ്പോൾ അതിൽ

അങ്ങനെ ഉറുദു ഹിന്ദി തമിഴ് അങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് ഭാഷകൾ ഈ ലോകത്ത് ഉണ്ട് പിന്നെ ഈ ഭാഷകൾ ചിലത് ചിലതിൽ നിന്ന് കടം എടുത്തിട്ടുള്ളതായിരിക്കും ചിലത് ചിലതിൽ നിന്ന് കടം എടുത്തിട്ടുള്ളതാണെന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് ആയിരിക്കില്ല ഭാഗികമായിട്ട് കടമെടുത്തത് അത് അല്ലെങ്കിൽ ഭാഗികമായിട്ട് എന്ന് പറയുമ്പോൾ തന്നെ ഭൂരിപക്ഷം അതിൽ നിന്ന് കടം എടുത്തത് ഇപ്പം ഉദാഹരണത്തിന് ഹിന്ദിയും ഉറുദുവും തമ്മിലുള്ള ഒരു കണക്ഷൻ പോലെ

ഏതായാലും ഇപ്പം മ മലയാളത്തിൽ മേ മലയാളത്തിലെന്ന് പറയുന്നത് ഹിന്ദിയിൽ മേരാ നാം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് അതായത് അതേപോലെ തന്നെയാണ് ഉ ഉറുദുവിലും മേരാ നാം എന്ന് പറയുമ്പോൾ എൻ്റെ പേര് എന്നുള്ള അർത്ഥത്തിലാണ് വരിക അങ്ങനെ ഒരുപാട് ബന്ധങ്ങളുള്ള ഒരു സംഭവം ഇങ്ങനത്തെ ചില ഭാഷകളിൽ ഉണ്ട് പിന്നെ സംസ്കൃതം പോലെയുള്ള ഭാഷകൾ

മലയാളത്തിൻ്റെ ഒരുപാട് കാര്യങ്ങൾ സംസ്കൃതമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് സംസ്കൃതത്തിനെ നേരെ പറ്റി അറിയില്ലെങ്കിലും നമ്മുടെ മല മലയാള ഭാഷ എന്ന് പറയുമ്പോൾ അതുമായിട്ട് എന്തൊക്കെയൊ ഒരു ടച്ച് ഉള്ള ഭാഷയാണ് ഇപ്പം നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും

ഈ മറ്റുള്ള ഭാഷക്ക് എങ്ങനെയാണ് മലയാള ഭാഷയോടുള്ള കണക്ഷൻ എങ്ങനെയാണ് ആ ബന്ധം എന്നുള്ളത് നമ്മൾ വളരെ പഠിച്ചാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ പക്ഷെ എന്ത് എങ്ങനെ പറയുകയാണെങ്കിലും മലയാള ഭാഷ എന്നുള്ളത് മറ്റുള്ള ഭാഷകളായ സംസ്കൃതം ഇംഗ്ലീഷ് അതുപോലുള്ള മറ്റുള്ള ഭാഷകളുമായിട്ട് വളരെ സ്വാധീനിച്ചിട്ടുണ്ട് മറ്റുള്ള ഭാഷകൾ ഒരുപാട് സ്വാധീനിച്ചിട്ടുള്ള ഒരു ഭാഷയാണ് നമ്മളുടെ മലയാള ഭാഷ എന്ന് പറയുന്നത് അപ്പം ഓക്കെ താങ്ക്യൂ